ഇരുപത്തി നാല് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പതിനഞ്ച് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇരുപത്തി നാല് രണ്ടായിരത്തി ഒൻപത് ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്